ഓം സഹനാ വവതു സഹനൗ ഉപത്തു സഹനൗ ഉപനക്ത്തു സഹവീര്യം കരവാവഹേയ് തേജസ്വിനാ വതീതമസ്തുമാ വിദ്വഷാമഹേ ഓം ശാന്തി ശാന്തി ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ് എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങൾ ഒരുമിച്ച് രക്ഷിക്കപ്പെടട്ടെ ഞങ്ങൾ ഒരുമിച്ച് വിദ്യ അനുഭവിക്കാൻ ഇടയാകട്ടെ ഞങ്ങൾ അന്യോന്യം സഹായിച്ചും സഹകരിച്ചും പ്രവർത്തിക്കാൻ ഇടവരുത്തണമേ ഞങ്ങളുടെ വിദ്യ ഫലവ ത്താക്കണമേ ഞങ്ങളുടെ ഇടയിൽ പരസ്പര കലഹം ഇല്ലാ ഇല്ലാതാക്കട്ടെ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവും ദൈവികവുമായ ശാന്തി ഉണ്ടാകട്ടെ